ഹലോ ബ്ലൂ റോസ് ബ്യൂട്ടി പാർലർ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ മാം പറഞ്ഞോളൂ ആ മാം അപ്പോയിമെൻറ്റ് എന്തെങ്കിലും ബുക്ക് ചെയ്തതായിരുന്നോ ആ ഓക്കെ മാം ചോദിച്ചോളൂ ചോദിച്ചോളൂ ഓ ഓ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ സോ മച്ച് ആ മാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ്സ് ആണ് അതുകൊണ്ടുതന്നെ ഒരു ക്ലയൻറ്സും ഇതുവരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല മാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ മാം ആ മാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാക്കേജുകൾ ഉണ്ട് ആ ഓക്കെ നം ആ പറഞ്ഞ് തരാം മാം നമുക്ക് ഒരു പെഡിക്യൂറും മാനിക്യൂറും ഹൈഡ്രാ ഫേഷ്യലും അല്ലെങ്കിൽ ഗോൾഡൻ ഫേഷ്യലും ഇതടങ്ങിയൊരു പാക്കേജ് ആണുള്ളത് നമ്മളൊരു ഫിഫ്റ്റീൻ കെ ആണതിന് റേറ്റ് വരുന്നത് ആ അപ്പോൾ നമ്മളത് മാമിന് പറ്റുന്ന ഡേറ്റിൽ ചെയ്യും

ആ ഇത് മൂന്നുമുള്ള പാക്കേജ് ആണ് മാമിന് എങ്ങനെയാണ് മ്യാരേജിൻ്റെ പിറ്റ് തലേന്നുള്ള ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ നമുക്ക് ചെയ്യാവുന്ന ഏർപ്പാടുകൾ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട് ആയിരിക്കും കല്യാണത്തിന്റെ അന്ന് പ്രത്യേകിച്ച് ഫേഷ്യൽ ആണല്ലോ പുറത്തേക്ക് കാണിക്കുക അധികം മാമിൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആണോ ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര ആഴ്ച മുന്നേ ചെയ്യാം ആ മാമിൻ്റെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്നൊക്കെ നമുക്കറിയണം എന്നാലേ നമുക്കത് ഏതാണ് സ്യൂട്ട് ചെയ്യാൻ എന്നറിയാൻ പറ്റു ഏതാണ് സ്യൂട്ട് ആവുക എന്നറിയേണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ആണ് കുറച്ചും കൂടി നല്ലതായിരിക്കുക ആ ഓക്കെ ഓക്കെ അപ്പം മാം ഞാൻ പറയുന്നത് എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്നര ആഴ്ച മുന്നേ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാം ഒരു ദിവസം പെഡിക്യൂർ ഒരു ദിവസം മാനിക്യൂർ ഒരു ദിവസം നമുക്ക് ഹൈഡ്രാ ഫേഷ്യലും ചെയ്യാം ആ അപ്പം ആ ഇത് തന്നെയാണ് മാം വാട്സപ്പ് നമ്പർ അപ്പം മാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്തേക്കൂ ഞാൻ ലൊക്കേഷനും അതുപോലെ ബാക്കി ഡീറ്റേൽസുമൊക്കെ ഞാൻ മാമിന് അയയ്ക്കാം ആ ഓക്കെ ഓക്കെ ആ താങ്ക് യൂ താങ്ക് യൂ